എനിക്ക് ടിവി പ്രോഗ്രാമുകളിൽ ഏറ്റവും ഇഷ്ടപെട്ടതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ ആണ് അതാകുമ്പോൾ പിന്നെ ഈ കുട്ടികൾ കാണുന്നതിനും തെറ്റില്ല നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഇത് ഇങ്ങനെ എൻ്റർറ്റെയ്നിങ് പ്രോഗ്രാംസൊക്കെ കുറേയുണ്ട് അപ്പം അങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ കാണും കാരണം നമ്മുടെ മൈൻഡ് റിലാക്സെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം കാണുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക എന്നത്